കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാട് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെത്തന്നെ എല്ലാ താലൂക്കുകളിലും ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ഇതെല്ലാം ഉണ്ട് അതിനു പുറമെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട് അഹല്യാ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ അങ്ങനെ പാലക്കാട് ജില്ലയിലെ മുക്കിലും മൂലയിലും ഇന്ന് ആരോഗ്യ രംഗത്ത് വലിയൊരു കുതിച്ചു ചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു പുറമേ പ്രൈവറ്റ് ക്ലിനിക്കുകൾ ഫാർമസികൾ കമ്മ്യൂണിറ്റി ഹെൽത്തുകൾ ഇതെല്ലാം പാലക്കാടിൻ്റെ എല്ലാ ഗ്രാമ പ്രദേശത്തും ഉണ്ട് ഇത് കോവിഡ് മഹാമാരി സമയത്ത് ജനങ്ങളെ വളരെ അധികം സഹായിച്ച ഒരു സംഭവമാണ് കാരണം ആ സമയത്ത് ആൾക്കാർ ഈ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് അയൽവക്കത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതുപോലെത്തന്നെ അവിടെ ഈ കൊറോണ ടെസ്റ്റ് പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആരോഗ്യ രംഗത്ത് വലിയൊരു കുതിച്ചു ചാട്ടത്തിന് വഴി വച്ച ഒന്നാണ് ഈ അഹല്യാ ഹോസ്പിറ്റൽ പോലുള്ളവരുടെ സംഭാവന ഇതിൽ എടുത്ത് പറയണം കാരണം കോവിഡ് മഹാമാരി സമയത്ത് അവിടെ ചികിത്സിപ്പിക്കാവുന്ന സൗകര്യങ്ങളൊയൊക്കെ നോക്കുമ്പോൾ വലിയൊരു കുതിച്ചു ചാട്ടമാണ് ഈ ആരോഗ്യ രംഗത്ത് ഉണ്ടായിരിക്കുന്നത് അതുപോലെത്തന്നെ പാലക്കാട് ഡിസ്റ്റി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഇതെല്ലാം വന്നപ്പോൾ നമ്മൾ അന്യ ജില്ലയെ ആശ്രയിക്കേണ്ട ഒരു കാര്യം ഇന്നില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോസ്പിറ്റലുകൾ ഇന്ന് പാലക്കാട് നമ്മൾക്ക് കാണാൻ കഴിയും ഇത് പാലക്കാടിലെ ആരോഗ്യ മേഖലയെ വലിയൊരു രീതിയിൽ സഹായിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ രോഗത്തിനുമുള്ള എല്ലാ ടെക്നോളജിയും പാലക്കാടിലെ ഹോസ്പിറ്റലുകളിലുണ്ട് പണ്ടത്തെപ്പോലെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അതുപോലെത്തന്നെ കോയമ്പത്തൂരിനെ ആശ്രയിക്കേണ്ട ഒരു നില ഇന്നില്ല എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ എല്ലാ ഹോസ്പിറ്റലുകളും ഇന്ന് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്